അതേയ് വേറൊന്നും അല്ല വേറോരു വർക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തിരക്കായിരുന്നു പറഞ്ഞോളു എന്താ വേറെ നമുക്ക് പഴയ അന്ന് പറഞ്ഞ പ്ലാൻ തന്നെ അല്ലെ ആ തറവാട് മോഡൽ ഒരു വീട് പണിയാൻ അതല്ലേ ഉദ്ദേശിച്ചത് ആ ഓക്കേ എത്ര സ്ക്വയർ ഫീറ്റാണ് വേണ്ടത് മുന്നൂറ്റൊമ്പത് തൊള്ളായിരം ആയിരം അങ്ങനത്തെ റേഞ്ച് ആണ് നമ്മൾ ചെയ്യാറ് ചെറുതങ്ങനെ തറവാടെന്നൊക്കെ പറയുമ്പോഴേയ് നമുക്ക് കുറച്ച് റൂമും കാര്യങ്ങളും പഴയ ഒരു മോഡലൊക്കെ വരുമ്പോഴേയ്

അതെ അതെ അതെ അതെ അതെ അതെ

ആ ആ ആ നമുക്കത് ആ ഓക്കേ നമുക്കെന്താ വച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുക്ക് മൊത്തം അത് റെഡിയാക്കിയിട്ട് അതിൽ പുതിയ മോഡല് വീട് കാണാൻ പഴയ പോലതന്നെ ഉണ്ടാവും പഴയ മോഡലായിരിക്കും പക്ഷെ അതിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പുതിയതായിരിക്കും ഇപ്പോൾ സ്വിച്ചുകളായാലും ലൈറ്റ് സെറ്റപ്പ് അതുപോലത്തെ കാര്യങ്ങൾ പിന്നെ ആ മറ്റേ പുതിയ ആ ഓടും എല്ലാ സംഭവങ്ങളും നമുക്ക് പുതിയ മോഡലാക്കാം അപ്പോൾ ആ മോഡല് നമുക്ക് കാണുമ്പോൾ തറവാട് പോലെ നാലുകെട്ട് പോലെയൊക്കെ ഉള്ളിൽ മഴയൊക്കെ വരണ സെറ്റപ്പൊക്കെ ആക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുതിയതുതന്നെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ ആൾക്കാർക്കായാലും ആർക്കായാലും പെട്ടന്ന് യൂസ് ചെയ്യൻ പറ്റുന്നപോലുള്ള കാര്യങ്ങൾ അതല്ലേ ഉദ്ദേശിക്കണത് ആ ഓക്കേ ഇപ്പോൾ ഏകദേശം ബഡ്ജെറ്റ് നിങ്ങൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത് രണ്ടു മൂന്ന് ലക്ഷത്തിന് നമുക്ക് നടക്കും എന്ന് തോന്നുന്നില്ല ആ പിന്നെ ഒരു പത്ത് പതിനഞ്ച് ലക്ഷമെങ്കിലും ആവും ആ നമുക്ക് പതുക്കെ പതുക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പണിയാം അല്ല ഓരോ റൂമായിട്ടല്ല ആദ്യം ബേസ്മെൻ്റ് പിന്നെ കിണർ അതുപോലെ ഓരോ നിലയായിട്ടേ അതാവുമ്പോൾ നിങ്ങൾക്ക് അത്ര ടെൻഷൻ വരില്ല

അതെ അതെ അതെ അതെ ആ ഞാനപ്പം മുഴുവൻ പ്ലാനായിട്ട് ചേട്ടൻ്റെ അടുത്തേക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് അങ്ങോട്ട് വരാം ഓക്കേ ശരി ഏട്ടാ